ഹലോ ഇങ്ങളെപ്പ ഞാൻ നിൽക്കണ സ്ഥലത്തെത്തിയാണോ നിങ്ങളെവിടാണ് ഇപ്പം നിൽക്കണത് എനിക്ക് കാണാമ്പറ്റില്ല ഇങ്ങടെ സ്ഥലം മാറിപ്പോയോ മേൽമുറി അങ്ങാടീലന്നെയല്ലേ ഇങ്ങളിപ്പ നിൽക്കണത് മേലങ്ങാടീലൊന്നല്ലല്ലോ ഞാൻ ഇവിടുത്തൊരു പലചരക്ക് കടേൻ്റെ മുമ്പിലാണ് നിൽക്കണത് കടൻ്റെ പേര് ദാസേട്ടൻ്റെ പീടിയാന്നാ ഇനി അതും മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ അപ്പറത്തന്നെ ഒരു അടുക്കള സാധനമൊക്കെ വിൽക്കണ ഒര് കടേണ്ട് വലിയൊരു കടയാണ് അതിൻ്റെ പേരിപ്പം ദേവനാർ കോവിലാണ് നിങ്ങക്ക് ഇപ്പളാ സ്ഥലം മൻസ്സിലായില്ലേ ഈ സ്ഥലമൊക്കെ ഇങ്ങക്ക് പരിചയോണ്ടാവേണ്ടയാണല്ലോ ഇങ്ങൾ കുറെ ഓടണതല്ലേ പിന്നേ എന്താ ഇത്ര സമയമൊക്കെ എടുക്കണത് ഞാനൊരു വെള്ള ചുരിദാറാണ് ഇട്ട്ക്കണത് ഞാൻ കുറച്ചുങ്കൂടെ റോഡിൻ്റെ അട്ത്ത്ക്ക് വരാം അപ്പം ഇങ്ങക്ക് കണ്ടെത്താൻ കഴിയൂന്ന് കരുതണ് എനിക്കൊരു സൽക്കാരം ഇണ്ടായിനു അപ്പോൾ പെട്ടെന്ന് വരാൻ നോക്കി എന്നാൽ ഞാൻ വെക്കുക